നമ്മൾ എണ്ണമയമുള്ള പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകണം അതു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് കു റച്ച് എണ്ണമയമൊക്കെ പോയിട്ടുണ്ടാവും അതുകഴിഞ്ഞു നമ്മൾ നന്നായി എക്സോയിന്റെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം എക്സോ സോപ്പ് നല്ല പാത്രം കഴുകാനൊക്കെ നല്ല നല്ലതാണ് നല്ല യൂസ്ഫുളായിട്ടുള്ള സോപ്പാണ് നമുക്ക് നല്ല ലാഭകരവുമാണ് അങ്ങനെ നമ്മൾ എക്സോയിന്റെ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ പാത്രം നന്നായി വെട്ടിത്തിളങ്ങും അതുപോലെത്തന്നെ നമ്മൾ കരിയൊക്കെയായിട്ട് ഉള്ള കലമൊക്കെ കഴുകുകയാണെങ്കിൽ നമ്മൾ ചാരം ഉപയോഗിച്ച് കഴുകണം അതു നമ്മുടെ വിറകിൽനിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം കൂടി ആയതുകൊണ്ട് ചാരമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ നന്നായി വെട്ടിത്തിളങ്ങും നമ്മൾ സോപ്പിൽ എന്ന് ഉള്ളതിൽ ഉപരി ചാരം വച്ച് കഴുകുമ്പോൾ നമുക്ക് നല്ല തെളിച്ചവും എല്ലാം കിട്ടും പിന്നെ സോപ്പിനെക്കുറിച്ച് പറയാൻ സോപ്പാണെങ്കിൽ അതിൽ കുറേ എന്താ ബേഡായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചാരം ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ നന്നായി വെട്ടിത്തിളങ്ങുകയും നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസായ കാര്യങ്ങൾ ഒന്നും സംഭവിക്കില്ല പാത്രം നന്നായി കഴുകുമ്പോൾ നമ്മുടെ അതിന്റെ ഇടയിൽക്കൂടിയും ഒക്കെ ചിലപ്പോൾ നമ്മൾ തുണിയൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതിന്റെ ഇടയിൽക്കൂടിയൊക്കെ കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കയറിയിരിക്കും അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം കഴുകാൻ പിന്നെ കമ്പിച്ചകിരി വച്ചൊക്കെ പാത്രം കഴുകുമ്പോൾ കുറച്ചുകൂടി വൃത്തിയാകും നമുക്ക് ആ ഇപ്പോൾ പുതിയതായിട്ട് എങ്ങനെ തെളിഞ്ഞുനിൽക്കുന്നോ അതുപോലെതന്നെ ഉണ്ടാകും അപ്പോൾ നല്ല നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിലുപരി സോപ്പ് ഉപയോഗിച്ചും ചാരം ഉപയോഗിച്ചും കഴുകുകയാണെങ്കിൽ കുറച്ചുംകൂടി നല്ല വൃത്തിയായിട്ടും കുറച്ചുംകൂടി തെളിച്ചമായിട്ടും നമുക്ക് പാത്രം കാണപ്പെടാൻ സാധിക്കും